അത് ഞാനിവിടെ എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ് ഞാൻ മരിയ റെസ്റ്റോറൻറ്റിൽ നിന്നും എനിക്ക് ഉച്ചത്തേക്ക് ഒരു ബിരിയാണി ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണി പ്ലസ്സ് ഇത് ചിക്കൻ ഫ്രൈയ്യ് കൂടോഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ആ മഴയത്തായാലും എനിക്ക് എത്തേണ്ട സമയത്ത് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ഫുഡ്ഡെത്തിച്ചു ഫുഡ്ഡാണെങ്കിൽ വളരെ നല്ലതായിരുന്നു അതിൽ ഞാൻ നന്നായിട്ട് നിങ്ങളോട് വളരെയധികം രീതീൽ നല്ല രീതീൽ ഏറ്റോം നല്ല രീതീൽ നന്ദി പറയാനും നല്ല രീതീൽ കടപ്പെട്ടിരിക്കുന്നു നിങ്ങളത്രേം ഇതായിട്ട് നിങ്ങൾ എനിക്ക് ഫുഡ്ഡ് കൊണ്ട് തന്നതിൽ വളരെ നന്ദി പല ചിലരൊക്കെയാണെന്ന് ഉണ്ടെങ്കിൽ മഴയാണ് അല്ലെങ്കിൽ ഇപ്പം വളരെ ബുദ്ധിമുട്ടുണ്ട് മേഡം എന്നൊക്കെ പറയും പക്ഷേ അതെന്തായാലും എനിക്ക് സമയത്ത് തന്നെ ആ ബിരിയാണി എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി അതിന് ഞാൻ നിങ്ങളോട് വളരെയധികം എൻ്റെ നന്ദി അറിയിക്കുന്നു ഇനിയും ഞാൻ എനിക്കിതു പോലെ നിങ്ങളെ വിളിയ്ക്കണം എനിക്ക് ഇതുപോലെ ഫുഡ്ഡ് വേണ്ടിവരും അപ്പം നിങ്ങൾ എനിക്ക് സമയത്ത് കൊണ്ടെത്തും എത്തിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് നീങ്ങുന്നു